ആലപ്പുഴ ജില്ലയിലെ പ്രധാന കാർഷിക ഉത്പന്നങ്ങളാണ് നെല്ല് കയർ പ്രധാനമായും നെല്ല് ഉത്പാധിപ്പിക്കുന്ന കൃഷി രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടായിരുന്നു എങ്കിൽ പാടത്ത് കാളയെ ഉപയോഗിച്ച് ഉഴുത് വളമിട്ട് വെള്ളം കയറ്റി ഞാറു വിതച്ച് ആണ് നെല്ല് കൃഷി ചെയ്തിരുന്നത് അതിനുശേഷം നമ്മൾ പ്രത്യേക അത് നെല്ല് പാകമാകുമ്പോൾ സ്ത്രീകളെല്ലാം കൂടി നെല്ല് പിഴുകിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നാണെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് പാടം ഉഴുത് വിത്തിട്ട് നെല്ല് വിതച്ച് നെല്ല് നെല്ല് കിളിർത്തു വരുമ്പോൾ ഞാറ് പറിച്ചുനടാൻ തന്നെ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല അത് നെല്ല് ഞാറു വലുതായി നെൽച്ചെടിയായി നെല്ല് പാകമാവുമ്പോൾ അത് കൊയ്യാനും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു മാത്രമല്ല ഇപ്പം കയറാണെങ്കിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാർഷിക ഉത്പന്നമാണ് കയർ പണ്ട് തൊണ്ട് കുളത്തിലിട്ട് ചീയിച്ച് തൊണ്ട് തല്ലിയാണ് ചകിരി ഉണ്ടാക്കിയിരുന്നത് ആ ചകിരി സ്ത്രീകൾ കൈ കൊണ്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ റാട് എന്ന് പറയുന്ന യന്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയാണ് കയർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല കുളങ്ങളിൽ ഇട്ട് ചീയുന്ന തൊണ്ട് യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചകിരിയാക്കി മാറ്റുന്നതും അത് ഇപ്പം രണ്ട് സ്ത്രീകളാണ് കയർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ